ഞങ്ങടെ പ്രദേശത്ത് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഒരപ്പം തെരളി വട്ടയപ്പം ചക്കയപ്പം ഇലയപ്പം മുതലായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയെല്ലാം തന്നെ സ്വീറ്റ്സ് ആണ് ശർക്കരയും തേങ്ങയും ഏലക്കയും ഒക്കെ ഫില്ലിംഗ് ആയി വച്ചിട്ടാണ് ഇവ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടമാണ് കുട്ടികൾക്ക് സ്കൂളുകളിൽ സ്നാക് ആയി കൊടുത്തയയ്ക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇവയെല്ലാം തന്നെ ഇവയുടെ പ്രത്യേകതയെല്ലാം പറയുന്നത് ഇവയെല്ലാം തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നവയാണ് ഇവ ഒന്നും തന്നെ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതല്ല അപ്പോൾ പ്രായമായവർക്കും ഒക്കെ നല്ലവണം കഴിക്കാവുന്നാണ് ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വാങ്ങുന്ന ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല ശരീരത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ഇവ ചെയ്യുന്നത് അതും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്